എനിക്ക് വളർത്തുമൃഗങ്ങളെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് വളർത്തുമൃഗങ്ങളെ വീട്ടിൽ വളർത്തുവാൻ എനിക്കിഷ്ടമല്ല കാരണമെന്ത്ച്ചാൽ എനിക്ക് അത് ആ വളർത്തുമൃഗങ്ങളെ നാം ഞാൻ വീട്ടിൽ വളർത്തിയാൽ അതിനെ ഉള്ളിൽ വ അത് ഉള്ളിൽ വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വളർത്തുമൃഗങ്ങളെ വളർത്താൻ ഇഷ്ടപ്പെടാത്തത് പിന്നെ എന്ത് വെച്ചാൽ ഞാനെൻ്റെ ഇത് കുട്ടിക്കാലത്ത് അതായത് എൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ചാച്ചനെ ഒരു പട്ടി കടിച്ചിട്ടാണ് മരണപ്പെട്ടത് അപ്പോൾ അതുകൊണ്ടെനിക്ക് എനിക്കെൻ്റെ അച്ചാച്ചനെ കാണാൻ പോലും പറ്റിയില്ല അതുകൊണ്ടാന്ന് എനിക്ക് ഇത് ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം അതും കൂടിയാന്ന് പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എൻ്റെ വീട്ടിൻ്റെ അടുത്തുതന്നെയാണ് എൻ്റെ അ ഏട്ടത്തി ഏട്ടൻ്റെ വീട് ആ വീട് ആ വീട്ടിൽ ഒരുപാട് ഒരുപാട് പിന്നെ പൂച്ചകളും ഒക്കെയുണ്ട് അപ്പം അവർ അത് അതിനെ വളർത്തുമ്പോൾ അവിടത്തെ പൂച്ചകളൊക്കെ ഞങ്ങളുടെ വീട്ടിലാന്ന് വ ഞങ്ങളുടെ വീട്ടിലെ പരിസരത്താന്ന് ഉണ്ടാവാറ് അതങ്ങൾ ഒരുപാട് ഉപദ്രവകാരികളാണ് അതായത് കട്ട് തിന്നുക ഒക്കെ ചെയ്യും അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്ന വിഷയമല്ല പിന്നെ നമ്മൾ ഞാൻ ആഹാരം കഴിക്കുമ്പോൾ അത് എൻ്റെ എതിർ ഇരുന്ന് ആ ആ ഇങ്ങനെ ആഹാരം തിന്നുന്നതും എനിക്കത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പറഞ്ഞാൽ അത് തിന്നുമ്പോൾ അതിൻ്റെ ആ ഉമിനീര് ഇങ്ങനെ ഇറങ്ങിവരും അപ്പോൾ എനിക്കത് കാണുമ്പോൾ എന്തൊപോലെയാണ് പക്ഷേ എനിക്ക് ദൂരെന്ന് പൂച്ചെനെം പട്ടീനെം മുയലിനെയൊക്കെ കാണാൻ നല്ല ഇഷ്ടാന്ന് എൻ്റെ വീട്ടിൽ വളർത്താൻ എനിക്ക് ഇഷ്ടമില്ലാന്നെയുള്ളു അതല്ലാതെ എനിക്ക് മൃഗങ്ങളെ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ള ആ ഒരു ആറ്റിട്യൂഡ് ഒന്നും എനിക്കില്ല എനിക്ക് പിന്നെ അതിനെ എൻ്റെ ഞാൻ ഞാൻ വളർത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല അത്രേയുള്ളു അതാ ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് ഞാനൊരു സോഷ്യൽ വർക്കറാന്ന് അപ്പം പിന്നെ എനിക്ക് ഈ പട്ടിനെ ഭയങ്കര പേടിയാണ് എത്ര പാവപ്പെട്ട പട്ടിയാണെങ്കിലും പിന്നെ എൻ്റെഎതിർക്കൊരു പട്ടി വന്നാൽ ഞാൻ അവിടെ അവിടന്നങ്ങ് മാറിപ്പോവും പറഞ്ഞാൽ എനിക്കെങ്ങനാണ് ഫ്രണ്ടിലോട്ട് പോവണെ എനിക്ക് നല്ല പേടിയാണ് അത് പട്ടി ചിലപ്പോൾ പാവമായിരിക്കാം പക്ഷേ എനിക്ക് ഫ്രണ്ടിലോട്ട് പോവാൻ നല്ല പേടിയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ പട്ടിനെ കാണുമ്പോൾ തന്നെ ആടെ തന്നെ നിൽക്കും പിന്നെ എനിക്ക് ഫ്രണ്ടിലോട്ട് പോകാനെ പേടിയായിട്ട് ആടെ തന്നെ നിൽക്കും പിന്നെ ഏതെങ്കിലും ചേട്ടന്മാരോ ആരെങ്കിലും അ അതിലെ ചേച്ചിമാർ ആരെങ്കിലും അതിലെ വരുകയാണെങ്കിൽ അവരോട് പറയും ആ പരിസരത്തുള്ള പട്ടീനെ അവരിക്കറിയാല്ലോ അപ്പം അത് കടിക്കുന്ന പട്ടിയാണോ അങ്ങനെ ചോയിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകാറ് പിന്നെ അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കമ്പ് കൈയ്യിൽ കരുതിയിട്ടാവും ഞാൻ പോവുന്നത് അങ്ങോട്ടേക്ക് അതാന്ന് കമ്പിനെ കൈയ്യിൽ കരുതിയിട്ടാണ് ഞാൻ പോവുന്നത് അതാണ് എൻ്റെ പതിവ് അതില്ലെങ്കിൽ ഞാൻ ഫീൽഡിൽ പിന്നെ പോവുന്ന സമയത്ത് വേറെ മൃഗങ്ങൾ അത് ഇങ്ങനെ വളർത്തുമൃഗങ്ങൾ എനിക്ക് ഏറ്റവും പേടിയുള്ളത് പട്ടീനെയാണ് പിന്നെ പൂച്ചനെ ഒന്നും പേടിയായിട്ടല്ല പേടിയല്ല പക്ഷേ എനിക്ക് എൻ്റെ എതിര് എൻ്റെ അടുത്ത് പൂച്ച വന്നിരിക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല ഇഷ്ടമല്ല അതാ കാരണം ഒരു പൂച്ചനെ ഒക്കെ പട്ടിനെ ഒക്കെ ഞാൻ വളർത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു എൻ്റെ അച്ചാച്ചൻ മരിച്ചിട്ട് മരിച്ചത് പട്ടി കടിച്ചിട്ട് ആണെങ്കിൽ പോലും ഞാൻ പട്ടീനെം പൂച്ചെനെം ഒക്കെ വളർത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് പട്ടീനെം പൂച്ചെനെം ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി വന്നത് എൻ്റെ പൂ ആ ആ അച്ഛമ്മയും ഒക്കെ ഇതിനെപ്പറ്റി നമ്മളോട് അച്ചാച്ചൻ അങ്ങനാണ് മരിച്ചത് പിന്നെ പട്ടി കടിച്ച് ഇങ്ങനെ ഭ്രാന്തായിട്ടാണ് മരിച്ചത് അങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ ചെ ചെറുപ്പം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മനസ്സിൽ അതിനോടുള്ള ഒരു പേടി കടന്നുകൂടിയതു കൊണ്ടാന്ന് പിന്നെ ഒരു പട്ടിയെ ഒരു കുഞ്ഞു പട്ടിയെ അച്ഛൻ കൊണ്ടുവന്നപ്പോൾ അതിനെ ഇങ്ങനെ ഓമനിച്ചു വളർത്തി വളർത്തിട്ട് നമ്മളവിടന്ന് വീട് മാറി പോവുമ്പോൾ ആ പട്ടീനെ എനിക്ക് കൊടുക്കേണ്ടി വന്നു അതായത് പട്ടീനെ നമ്മൾ ഒന്നും ചെയ്തില്ല വിട്ടു വന്നതൊന്നുമല്ല പക്ഷേ ആ പട്ടീനെ വേറെ ഒരു ആൾക്ക് വളർത്താൻ കൊടുക്കേണ്ടി വന്നു അന്നേരം നമ്മൾ ആ വളർത്താൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി അവരുടെ അടുത്ത് പോകുമ്പോഴേക്ക് ആ പട്ടി ഒരുപാട് സങ്കടത്തോടെ കണ്ണീർ വരുന്നുണ്ടായിരുന്നു പട്ടീടെ മുഖത്ത് നിന്ന് അതുകൊണ്ട് ഇനി വേറെ പട്ടീനെ വളർത്തുന്നതെ വേണ്ടാന്ന് നമ്മൾ തീരുമാനിച്ചു തീരുമാനിച്ചതാണ് പൂച്ചയുണ്ടായിരുന്നു ഒരുപാട് അപ്പോൾ പൂച്ചെനെ എനിക്ക് വളർത്താൻ വേണ്ട എന്ന് തോന്നിയത്തിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ എനിക്ക് മുൻപേ എനിക്ക് ഇങ്ങനെ ഉമിനീരെല്ലാം വരുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്നാലും ഞാൻ ആ പട്ടീനെം പൂച്ചെനെം വളർത്തിയ ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ പൂച്ചനെ പിന്നെയും ഇഷ്ടമല്ലാതായത് എന്താ വെച്ചാൽ നമ്മളൊരുപാട് ഇഷ്ടപ്പെട്ട് ആ പൂച്ചയോ പട്ടിയോ നമ്മളിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരുപാട് വിഷമം ഉണ്ടാകുവല്ലോ അപ്പം പിന്നെ നമ്മൾ നമ്മൾ ഒരു മനുഷ്യരാണെങ്കിലും നമുക്ക് നമ്മളെ വിട്ട് നമ്മുടെ തന്നെ ആരെങ്കിലും റിലേറ്റീവ്സ് നമ്മളെ വി നമ്മളെ വിട്ട് ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമുക്ക് എങ്ങനെ സങ്കടമാവോ അതുപോലെ തന്നെയാണ് ഒരു പട്ടീനെയോ പൂച്ചെനെയോ നമ്മൾ വളർത്തിയിട്ടാവുമ്പോൾ അതിങ്ങൾ നമ്മളെ വിട്ട് പോവുമ്പോൾ അപ്പോൾ ആ സങ്കടം കൂടി നമ്മൾ സഹിക്കേണ്ടല്ലോന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ പൂച്ചനെ വളർത്തിയ കാര്യം പറഞ്ഞല്ലോ അന്ന് നമ്മൾ വീട്ടിൽ ഒരു രണ്ട് മൂന്ന് പൂച്ച ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പട്ടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മൾ ഒരു ഓണക്കാലം അന്നേരം നമ്മൾ കുട്ടിക്കാലാന്ന് ഓണക്കാലത്ത് നമ്മളെ വീടിന്റെ അടുത്ത് വേറൊരു സഹോദരങ്ങളുണ്ടായിരുന്നു അവർക്ക് അത് മുസ്ലീമുകളാന്നേ മുസ്ലിംസ് സഹോദരങ്ങളാണെ അവർക്ക് ഈ പട്ടിയൊക്കെ ഹറാമാന്നാ പറയുന്നത് ഹറാംന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ അതിനെയൊക്കെ അകറ്റി നിർത്തലാണ് പതിവ് പട്ടി പൂച്ചയല്ല പൂച്ച ഇപ്പോൾ എല്ലാ മുസ്ലീങ്ങളുടെ വീട്ടിലും പൂച്ചയുണ്ട് അല്ലാതെ പിന്നെ പട്ടീനെ മാത്രം മുസ്ലീങ്ങൾ ഒന്നും വളർത്തൂല അവർക്ക് അവർ അത് വളർത്താനിഷ്ടപ്പെടുന്നില്ല അതായത് അവരുടെ ചിലപ്പോൾ മതത്തിന് ഇഷ്ടമല്ലാഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ ഒരു ദിവസം ഓണക്കാലത്ത് നമ്മുടെ വീട്ടിൽ നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ അമ്മായിൻ്റെ വീട്ടിൽ ഞാനും അനിയന്മാരും ഒക്കെ അമ്മായിൻ്റെ വീട്ടിൽ പോയി വിരുന്നു പോയി എന്നിട്ട് വിരുന്നുപോയി വരുമ്പോഴേക്കും എൻ്റെ പൂച്ചയും പിന്നെ രണ്ട് കോഴികളും കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ ചത്തു കിടക്കായിരുന്നു പക്ഷേ നം എൻ്റെ പട്ടി മാത്രം ഒന്നും ആയില്ല നല്ല ബുദ്ധിയുള്ള പട്ടിയായിരുന്നു അതാ നമ്മുടെ വീട്ടിൻ്റെ ബേക്കിലുള്ള മുസ്ലീമുകൾ എൻ്റെ കോ ഇത് പിന്നെ പട്ടീനെ കൊല്ലാൻ വേണ്ടിയിട്ട് പിന്നെ ഗോളി ബാജില് വിഷമിട്ട് അവരു വെച്ചതാണ് പട്ടിക്ക് കൊടുത്തതാ പക്ഷേ എൻ്റെ പട്ടി അത് തിന്നാൻ തിന്നാനെ കൂട്ടാക്കിയില്ല തിന്നിട്ടുല്ല അതുകൊണ്ട് എൻ്റെ പട്ടി മാത്രം രക്ഷപ്പെട്ടു പിന്നെ എൻ്റെ പട്ടി അതിന് രക്ഷപ്പെട്ടുന്ന് പറയാം എൻ്റെ ആ പട്ടി പിന്നെ അതിനെ കൊണ്ടുപോയി പിന്നെ അവർ പൂച്ചേനെ കൊണ്ടുപോയി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഇട്ടു പട്ടികൾക്ക് അറിയില്ലല്ലോ ഇതെന്താ സംഭവം പക്ഷേ എൻ്റെ പട്ടി തിന്നില്ല അതിനെന്തോ സംശയം തോന്നിക്കാണും അതൊന്നും തിന്നിട്ടില്ല പിന്നെ പട്ടി അതിനെ കടിച്ച് അങ്ങ് കൊണ്ടുപോയി അപ്പം പിന്നെ അത് കഴിച്ച് അത് അപ്പുറത്തെ വീട്ടിലത്തെ ബാക്കിലെ വീട്ടിലുള്ള ആ വിഷം വെച്ച വീട്ടിലുള്ള പിന്നെ ഉമ്മയുടെ പശുവും വന്നിട്ട് തിന്നു പശു വന്നിട്ട് തിന്നിട്ട് പശു രണ്ടും മൂന്നും പശു അങ്ങ് ചത്തു പക്ഷേ എൻ്റെ പട്ടിക്ക് മാത്രം ഒന്നും പറ്റിയില്ല പക്ഷേ എൻ്റെ കോഴിയും തിന്നു പിന്നെ പൂച്ചയും തിന്നു എല്ലാം എല്ലാം പോയി എന്നിട്ട് എൻ്റെ പട്ടി മാത്രം ഇങ്ങ് വേറെ പിന്നെ എൻ്റെ പട്ടി മാത്രം അന്ന് ഒഴിഞ്ഞിട്ടു അതിനോണ്ടു പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഈ പട്ടീനെം പൂച്ചെനെം ഒന്നും നമ്മൾ പോറ്റന്നെ വേണ്ട പിന്നെ അത് പോറ്റിയിട്ട് അത് പോവുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുണ്ടാവും അതോണ്ട് നമ്മൾ ഇനി അതിനെ ഒന്നും പോറ്റാൻ നിക്കന്നെ വേണ്ട ഇത് വെറുതെ എന്തിനാണ് അയിറ്റ്ങ്ങളെ ആരെങ്കിലും കൊല്ലാൻ ആക്കുന്നത് അതാ മുസ്ലിംസ് പിന്നെ അതിന് പേടിയുണ്ടായത് ബേറെ ഒന്നും കൊണ്ടല്ല പിന്നെ അത് എന്ത് വെച്ചാൽ അവർ അതിലെ പോകുമ്പളേക്ക് അത് കുരക്കാൻ തുടങ്ങി എപ്പോളും കുര കാണുമ്പോഴൊക്കെ അവർക്ക് അപ്പോഴെക്ക് പിന്നെ ദേഷ്യം വരാതിരിക്കോ അതുകൊണ്ടായിരിക്കും അവർ വെച്ചത് പക്ഷേ അവർ പ പിന്നെ പശു എല്ലാം ചാകുന്നൊന്നും അപ്പം നിരീചിറ്റുണ്ടാകില്ല അതായ അതാണ് പ്രശ്നമായത് എന്തേങ്കും മൃഗങ്ങളെല്ലാം അവർ വരാതെ സാധാനങ്ങളല്ലെ അങ്ങനെ എല്ലാം ചെയ്യാൻ പാടുണ്ടോ പാടില്ല ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്ത കൂടാ മാത്രമല്ല അവർക്ക് പിന്നെ ബുദ്ധിയും ഇല്ലെങ്കിൽ വിവരം ഇല്ലെങ്കിൽ എന്താക്കുന്നതാ അതാണ് ഈ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം പക്ഷേ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് എട്ടന്റെ ആടെ പൂച്ച ഉണ്ട് എന്ന് പറഞ്ഞല്ലോ പക്ഷേ ആ പൂച്ച എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് വരാൻ കാര വിടുന്നില്ല എന്ന് മാത്രം പിന്നെ ആടത്തെ പട്ടിയും അതു ആയിട്ട് ജൂലി നായയാണ് നല്ല ക്യൂട് ഉണ്ട് കാണാനെല്ലാം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആ നായി നായിക്ക് പിന്നെ അത് അതിനെ ബിടോന്നുല്ല പുറമെ ഒന്നും ബല്ല അങ്ങനെ അല്ല അവർ വീട്ടിന്റെ വാതിക്കന്നെ എപ്പോളും കെട്ടിയിട്ടോണ്ടിരിക്കും എട്ടന്റെ ആടത്തെ പിന്നെ അത് ഞങ്ങളെ ആടെ ഞങ്ങളെടുക്ക ഒരിക്കം ഇവിടെ പാഞ്ഞോണ്ട് ഞങ്ങളടുക്ക വരും അപ്പോൾ എൻ്റെ മോൾ അതിന് എന്തെങ്കിലും ബേക്കറി സാധനം അതിന് ബേക്കറി സാധനം ഭയങ്കര ഇഷ്ടമാണ് അതിനോണ്ട് ബേക്കറി സാധനം എന്തെങ്കിലും കൊടുക്കും അപ്പോം അത് അതിനെ തിന്നും അതിനെ തിന്നിട്ട് ആയിട്ട് പിന്നെ ഇത് വേറെ ഒന്നും ഉപദ്രവൊന്നും ഇല്ല ഉള്ളിലേക്ക് ഒന്നും വരില്ല ആ പട്ടി അവർ വീട്ടിൽ ചിലപ്പം അവർ സിറ്റ് ഔട്ടിലേക്ക് കയറും എങ്കിലും ഞാൻ ചെറിയ ഒരു കമ്പ് എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ അത് മീത്തിലേക്ക് ഒന്നും വരാനൊന്നും നിൽക്കില്ല അതിന് വേണേ ആയത് അകത്ത് കൊടുത്തത് തിന്നിട്ട് എൻ്റെ മോൾ സിറ്റ് എന്ന് പറയുമ്പോൾ അത് സി ഇരുന്നിട്ട് അതിനെ തിന്നിട്ട് അത് പോവെല്ലം ചെയ്യും പിന്നെ ആടത്തെ പൂച്ചയെ അങ്ങനന്നെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നെങ്കിൽ പിന്നെ അത് എന്തെ തിന്നാനോ ഇങ്ങനെ കട്ട് തിന്നാനോന്നും നിൽക്കലില്ല എട്ടന്റെ ആടത്തെ പൂച്ച വന്നെങ്കിൽ അങ്ങനൊന്നും കട്ട് ഒന്നും എട്ടന്റെ ആടത്തെ പൂച്ച തിന്നില്ല പിന്നെ പുറമെ ഇരിക്കും നമ്മൾ ചോറെല്ലാം ബെക്കുമ്പോൾ പുറമെ വന്നിട്ട് ഇരിക്കും എന്നിട്ട് ആയിട്ട് നമ്മോ എന്തെങ്കിലും കൊടുത്തെങ്കിൽ തിന്നും പിന്നെ അതില്ലെങ്കിൽ പിന്നെ മീനിൻ്റെ മുള്ളെല്ലാം പിന്നെ പൂച്ചയ്ക്ക് മീനിൻ്റെ മുള്ളെല്ലാം ഭയങ്കര ഇഷ്ടമല്ലെ അതുകൊണ്ട് അതിനെ തിന്നുക വേണ്ടിയിട്ട് ഇരിക്കും വെറുതെ ഇങ്ങനെ അവിടെ നിൽക്കും അപ്പോൾ ഒരു വീട്ടിൽ ഒരു വട്ടം ചോറ് കിട്ടുമെങ്കിലും നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരു ചെറിയ മീനിൻ്റെ കഷ്ണം മുള്ളിൻ്റെ കഷ്ണത്തിന് വേണ്ടിട്ട് ഇരിക്കും ഇരുന്നിട്ട് പിന്നെ അതിനെ തിന്നും തിന്നിട്ട് കയ്യിഞ്ഞ് പിന്നെ അത് പോയത് പ്രശ്നമൊന്നുല്ല പിന്നെ എന്തെങ്കിലും വേസ്റ്റൊ മറ്റൊ തെങ്ങിന്റെ മെരട്ട് കളയുന്നുണ്ടെങ്കിൽ അതിനെ തിന്നിട്ട് ഇങ്ങനെ പോവും വേറെ പ്രശ്നമൊന്നുല്ല അതിനെക്കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അത്ന്നെ ഇത് അതിനെക്കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് വളർത്തുമൃഗങ്ങളെ വളർത്താൻ മാത്രം ഇഷ്ടമല്ല എന്നെ ഉള്ളു എനിക്ക് കാണാൻ എല്ലാം ഭയങ്കര ഇഷ്ടന്നെ അതാണ് എൻ്റെ കാര്യം